ഏറ്റവും എളുപ്പം എന്നാൽ പിന്നെ ഈ നോൺ വെജ് ഐറ്റംസ് എല്ലാം കുക്ക് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം എന്നാണ് തോന്നിയിട്ടുള്ളത് ഇറച്ചി കറികളും മീൻകറികളും ഒക്കെ ഉണ്ടാക്കാനാണ് നമുക്ക് കൂടുതൽ എളുപ്പമായിട്ടുള്ളത് അതിന് പ്രത്യേകിച്ച് അങ്ങനെ എല്ലാ സ്ഥിരമായിട്ട് നമ്മൾ വയ്ക്ക് വയ്ക്കുമ്പം നമുക്ക് ആ പണികളെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് മാറും അതേസമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യാത്ത എൻ്റെ വീടുകളിൽ എന്ന് വെച്ചാൽ നമുക്ക് അധികവും ഈ മത്സ്യവും മാംസവും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക അപ്പോൾ പച്ചക്കറികൾ കുറവേ ഉപയോഗിക്കാറുള്ളൂ അപ്പം അങ്ങനെ കാലക്രമേണ ഈ മത്സ്യമൊക്കെ കുക്ക് ചെയ്ത് പാചകം ചെയ്ത് പാചകം ചെയ്ത് അതിന് അത് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് അത് എളുപ്പമായിട്ട് തോന്നിയത് പിന്നെ ബുദ്ധിമുട്ട് ആയതെന്ന് വെച്ചാൽ ഒരു സദ്യ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതിനെക്കാളും എത്രയോ ബുദ്ധിമുട്ടാണ് സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കുറച്ച് സമയത്തെ പണിയുള്ളൂ പക്ഷേ സദ്യ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തരം കറികളും പച്ചക്കറികൾ അരിയണം പിന്നെ അങ്ങനെ തേങ്ങ ചിരവണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പച്ചക്കറികൾ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ വയ്ക്കാനായാലും ഒരുപാട് പച്ചക്കറി അരിയണം അതുപോലെ എല്ലാ എല്ലാ സദ്യൻ്റെ അകത്തും എല്ലാ വിഭവങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ കറികൾക്കും വേണ്ടിയിട്ട് ഒരുപാട് പച്ചക്കറികൾ വേണം അതൊക്കെ ഒരു ഒരാൾ തന്നെയാവുമ്പോൾ ഒക്കെ അരിഞ്ഞ് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതാണ് എനിക്ക് കുറേ കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരുപാട് കറി സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് എല്ലാ കറികളും ഉണ്ടെങ്കിലേ അതൊരു സദ്യ ആവുകയും ചെയ്യുള്ളൂ അത് അതിൽ പായസം അടക്കം വേണം ഒരു പ്രഥമനൊക്കെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് തേങ്ങ വേണം അതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുക്കണം അങ്ങനെ ഒരുപാട് സമയത്തെ പണിയാണ് ഈ സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും എളുപ്പം ബിരിയാണിയും ബിരിയാണി ബിരിയാണിയും ബുദ്ധിമുട്ടായിട്ടുള്ളത് നാടൻ സദ്യയും തന്നെയാണ്